മുപ്പത് ഇപ്പോൾ നൂറ്റി നാൽപത്തി അഞ്ച് കോടിയിലധികം മനുഷ്യർ വസിക്കുന്ന ഒരു വലിയ രാജ്യമാണ് ഇന്ത്യ അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്

ഏഴോളം യൂണിയൻ ടെെറിറ്ററികളുമായിട്ട് വിഭജിച്ച് കൊണ്ടിരിക്കുന്ന വിഭജിച്ച് ഇരിക്കുന്ന സംസ്ഥാനങ്ങളിലും അതേപോലെ ഈ പ്രദേശങ്ങളിലും എല്ലാം

ആസാമിൽ ആസാമിസ് ഭാഷ ബംഗ്ലാദേശിൽ അല്ലാത്ത ഈ വെസ്റ്റ് ബംഗാളിൽ ബംഗ്ലാ അതേപോലെ ഓരോ സംസ്ഥാനത്തും

അത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളു അല്ലാതെ നമുക്ക് ഇന്നത് എഴുത് എന്ന് പറഞ്ഞാൽ ആ ഭാഷയിൽ എഴുത്തൊന്നും ഇല്ല